ഇവിടെ നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് എല്ലാം എല്ലായിടത്തും പോകാൻ പറ്റുന്ന നമുക്ക് കൂടുതലും റെയിൽ വേനെയാണ് സാധാരണക്കാരൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽ വേ നമുക്കടുത്താണ് നമുക്ക് മറ്റ് സ്ഥലത്തേക്ക് നമ്മുടെ സുഖമായിട്ടുള്ള യാത്രക്കുമെല്ലാം ട്രെയിനാണ് വേഗം എത്തുക നമ്മൾ ബസ്സിലാകുമ്പോൾ ഓരോ സ്റ്റോപ്പും നിർത്തി നിർത്തി പോകുന്നതിനു പകരം ട്രെയിൻ ആകുമ്പോൾ വേഗം എത്തുന്നുണ്ട് അതേപോലെ ബസ് ഓട്ടോ റിക്ഷ ടാക്സി അങ്ങനെയുള്ള കൂടുതലും ആൾക്കാർ സാധാരണ ജനങ്ങൾ ഇതിനെയൊക്കെ ആശ്രയിക്കുന്നുണ്ട് പിന്നെ തിരക്കേറിയ ഒരു പിന്നെ ജില്ലയാണ് കോഴിക്കോട് മറ്റേ ജില്ലേനെ പോലെയല്ല തിരക്കേറിയ ജില്ലയാണ് നാട്ടിൻപുറം വളരെ കുറവാണ് എല്ലാം സിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നാട്ടിൻപുറം ഇല്ലയെന്നല്ല ഉണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാരും നമ്മളെ നമ്മുടെ നാട്ടിലെ കൂടുതൽ ആൾക്കാരും പിന്നെ റെയിൽ വേയാണ് കൂടുതൽ ഇതാക്കുന്നത് കാരണം നമുക്ക് താങ്ങാവുന്ന താങ്ങാവുന്നതുപോലെ ആയിരിക്കും അതിൻ്റെ പിന്നെ നിരക്കും പിന്നെ വേഗം എത്താനും പറ്റും അതായത് ഇത്ര സമയത്ത് ട്രെയിൻ ഉണ്ടെന്നു പറയുന്നു ട്രെയിൻ വരുന്നു നമ്മൾ കയറുന്നു നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുന്നു പക്ഷേ ബസ് ഒക്കെ ആകുമ്പോൾ ബസ് വരുന്നു ഓരോ സ്റ്റോപ്പ് ഇറങ്ങുന്നു നിർത്തുന്നു കൂടുതൽ ആൾക്കാരും നമ്മുടെ ഇതിൽ സംവിധാനം എന്ന് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെ എനിക്കറിയാവുന്ന കൂടുതൽ പേരും നമ്മൾ റെയിൽ വേയാണ് കൂടുതലും പിന്നെ ഇതാക്കുന്നത് റോഡും ഇല്ലയെന്നല്ല ഉണ്ട് സ്വകാര്യ ബസ്സുകൾ ഉണ്ട് പിന്നെ വാടക കാറുകൾ എടുത്തു പോകുന്ന ആൾക്കാരുണ്ട് ടാക്സികൾ ഉണ്ട് ഓട്ടോ റിക്ഷയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എല്ലാം ഓരോരുത്തർ ഓരോ ഇതിലാണ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇഷ്ടം നമുക്ക് വേഗം എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു